ഹലോ മാതാ അപ്ലെയ്ൻസ് സ്റ്റോറല്ലേ ഞാൻ പാറത്തോട്ന്നാണ് വിളിക്കുന്നത് എനിക്ക് ഒരു മിക്സീ ഗ്രേയ്ൻറ്റർൻറ്റെ നോക്കാൻ ആയിരുന്നു നമുക്ക് ഏതൊക്കെ ആണിപ്പം ഉള്ളത് ഏതൊക്കെ കമ്പനികളുടെയാണ് ഉണ്ട് നമുക്ക് ഒരു ഇരുപതിനായിരത്തിൽ താഴെ ഉള്ള മിക്സി ഗ്രൈൻറ്റർ രണ്ടും ഇതും കൂടി ഉള്ളത് വേണേൽ അപ്പം നമുക്ക് ഒരു ഇരുപതിൽ ഇരുപതിനായിരത്തിൽ താഴെ വരുന്ന ഏതൊക്കെ ഓപ്ഷൻസാണ് ഉള്ളതെന്ന് അറിയാനായിരുന്നു ഏറ്റോം ഇപ്പം പോകുന്ന കമ്പനിയേതാണ് ബട്ടർഫ്ലൈയ്യാണ് ഓക്കെ നമുക്ക് ഇതിന്റെ ആ ഹാ നമുക്ക് ഇതിന്റെ വാറണ്ടിയൊക്കെ എങ്ങനെയാണ് വരുന്നത്

ആ

ഉണ്ട് ഓക്കെ നമുക്ക് വേണ്ട നമുക്ക് ഇപ്പം ഏറ്റോം കൂടുതൽ കറൻണ്ട് ഒക്കെ എടുക്കുന്നത് ഏത് നമുക്ക് ഏറ്റോം കുറവ് കറണ്ട് യൂസ് ചെയ്യുന്നത് ഒക്കെ ബട്ടർഫ്ലൈയ്യാണോ ഓക്കേ ഓക്കെ ഓക്കെ എന്നാ ആണല്ലേ ഇതിൻറ്റെ സർവ്വീസ്സും കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണ് അതായത് ഇപ്പം എന്തേങ്കിലും ഒരു കമ്പ്ലേയ്ൻറ്റ് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സൈഡീന്നുള്ള വിടുമോ അതോ ഞങ്ങൾ പുറത്ത് കൊടുത്ത് ചെയ്യിക്കേണ്ടി വരുമോ മ് തരുന്നത് ഈ എൽ ജിക്കും ബട്ടർഫ്ലൈക്കും നമുക്ക് ഒരു ഇരുപതിൽ താഴെ കിട്ടുന്ന പ്രൊഡക്റ്റ്സുമുണ്ടല്ലേ ഓക്കെ നിങ്ങൾ ഉണ്ട് അല്ലേ ഹ് ഹാ ഹാ ഉണ്ട് നമുക്ക് ഫ്രിഡ്ജെങ്ങനെയാണ് വരുന്നത് പല ഇപ്പം വേൾപ്പൂളിൻറ്റേം സാംസങ്ങിൻറ്റെയുമുണ്ടോ നമുക്ക്

നമുക്ക് എങ്ങനേലും എക്സ്ച്ചേഞ്ച് ഓഫറൊണ്ടോ അതായത് പഴയത് തന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്തേലും എക്സ്ച്ചേയ്ഞ്ച ഓഫറെന്തേലും ഉണ്ടോ കുറച്ചിട്ട് നമുക്ക് കിട്ടും ഓക്കെ നമുക്ക് ഒരു പഴയ ഫ്രിഡ്ജൊണ്ട് അപ്പം അത് കൊണ്ട് തന്നിട്ട് നമുക്ക് ഒരു സാംസങ്ങിൻറ്റെ എടുക്കാൻ ആയിരുന്നു ഒരു ഡബിൾ ഡോറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ നാളെ ഇറങ്ങാൻ പറ്റും നാളെ ഉച്ച കഴിഞ്ഞ് വന്നോളാം

ശരി ശരി ആ ഓക്കെ ശരി ശരി അപ്പം ഓക്കെയെന്നാൽ ഓക്കെ ഓക്കെ ഞാൻ വിളിച്ച് ഈ നമ്പർലേക്ക് വിളിച്ചിട്ട് വന്നോളാം ഓക്കെ ശരി ഓക്കെ താങ്ക് യൂ